ഞാൻ പോവാൻ ആഗ്രഹിക്കുന്ന സ്ഥലം എന്നു പറയുമ്പോൾ ഒന്നാമത് ഞാൻ പോയിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്ഥലം എന്നു പറയണത് ഖത്തറാണ് അത് അടിപൊളി കണ്ട്രിയാണ് ചെറിയ കണ്ട്രിയാണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചറുകൊണ്ടും അത് ഡെവലപ്പുകൊണ്ടും വികസനംകൊണ്ടും ഒരു അടിപൊളി സ്ഥലമാണ് ഖത്തറ് വേൾഡ് കപ്പ് കാണാൻ വേണ്ടിയിട്ടാണ് ഖത്തറിൽ പോയത് വേൾഡ് കപ്പിന്റെ ഭാഗമായിട്ട് റ്റൂ തൌസൻ്റ് ട്വൻ്റി റ്റൂവിൽ നടന്ന വേൾഡ് കപ്പ് കണ്ടു ഒരുപാട് മാച്ചസ് കണ്ടു അപ്പം നമ്മൾ അത്ഭുതപ്പെടുന്ന പല കാര്യങ്ങളാണ് ഖത്തറെന്ന രാജ്യത്തെക്കുറിച്ച് പറയാനുള്ളത് ഇനിയും പോവാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണത് അവിടുത്തെ വികസനമായിക്കോട്ടെ അതുപോലെ സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ അവിടുത്തെ റോഡ് അറ്റ്മോസ്ഫിയറ് നമ്മൾ എല്ലാം അടിപൊളിയാണ് ഖത്തറ് ഫാമിലീസിന് ബാച്ചിലെ ആർക്കാണെങ്കിലും നല്ല സുരക്ഷിതമായിട്ടുള്ള ഒരു രാജ്യമാണ് നല്ല സുഗസുന്ദരമായിട്ട് നമുക്ക് അതിന്റെ ഖത്തറ് നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അവിടെ ഖത്തറ് ഗവൺമെൻ്റും നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് പ്രധാനമായിട്ട് ഖത്തറ് മ്യൂസിയം നമുക്ക് കാണാനുണ്ട് പിന്നെ അഞ്ചാറോ സ്റ്റേ സ്റ്റേഡിയമുണ്ട് സ്റ്റേഡിയം ഡിഫ്രണ്ട് ടൈപ്പിൽ നല്ല അടിപൊളിയായിട്ട് സ്റ്റേഡിയം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെതന്നെ നമ്മളവിടെ ചെന്ന് കയിഞ്ഞാൽ നമുക്ക് തരുന്നൊരു സേഫ്റ്റി ഉണ്ട് അവിടുത്തെ ഗവൺമെൻ്റ് ആയിക്കൊള്ളട്ടെ പിന്നെ പോലീസ് ആര് നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു വച്ചിട്ടുണ്ട് വളരെ മികച്ച ഒരു കണ്ട്രിയായിട്ടും നല്ല സ്ത്രീകൾക്കാണെങ്കിലും അർക്കാണെങ്കിലും വളരെ സുരക്ഷിതമായിട്ട് ജീവിക്കാൻ പറ്റിയ ഒരു കണ്ട്രി ആണ് ഖത്തറ് ഞാൻ പോയിട്ടുണ്ട് ഇനിയും പോവാൻ ആഗ്രഹിക്കുന്ന സ്ഥലമതാണ് അവിടെപ്പിന്നെ സമയത്ത് പോയതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളവിടെ മിസ്സ് ആയിട്ടുണ്ട് കാണാൻ അപ്പോൾ അതൊക്കെ ഇനിയും കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് പോയിട്ടുണ്ട് പിന്നെ പോവുന്ന സമയത്ത് അവിടുത്തെ കാലവസ്ഥയ്ക്ക് അനുയോജ്യമായ സെറ്റപ്പിൽ നമ്മൾ പോണം എന്താണെന്ന് വച്ചാൽ ഒരു ജൂൺ ജൂലൈ ആ ടൈമിലൊക്കെ അവിടെ ഭയങ്കരെ ചൂടായിരിക്കും ആ സമയത്ത് പോയാൽ അതിന്റെതായ റിസ്ക്ക് ഉണ്ടാവും ഡിസംബറിന് ശേഷം പോയിക്കഴിഞ്ഞാൽ നല്ല ആ നല്ലൊരു അറ്റ്മോസ്ഫിയറ് അവിടുത്തെ ബീച്ചും കാര്യങ്ങളും ഒരുപാട് ബീച്ചസുണ്ട് ഫാമിലീസിന് ഒരുക്കിയിട്ടുണ്ട് ബീച്ചും കാര്യങ്ങളൊക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് നമുക്ക് വളരെ അടിപൊളിയായിട്ട് ആസ്വദിച്ച് തിരിച്ച് വരാം പിന്നെ ഞാൻ പോവാൻ ആഗ്രഹിച്ച മറ്റൊരു സ്ഥലം എന്നു പറഞ്ഞത് പോയിട്ടുണ്ടവിടെ നിലമ്പൂരെന്നുള്ള പ്രദേശമാണ് നല്ല മലയോര പ്രേദേശമാണ് നിലമ്പൂരിൽത്തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് ഒരൊറ്റ ലോക്കേഷനിൽത്തന്നെ നിലമ്പൂർ തേക്ക് മ്യൂസിയം പാട്ടയംമ്പാറ വെള്ളച്ചാട്ടം അതുപോലെതന്നെ കനോലി പ്ലോട്ട് പിന്നെ അതുപോലെ ശരിക്കും പ്രകൃതിയേക്കുറിച്ച് പഠിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് നിലമ്പൂരെന്നുള്ള പ്രേദേശം അവിടുത്തെ ഒരുപാട് അപൂർവ്വമായിട്ടുള്ള സസ്യങ്ങളും അതുപോലെത്തന്നെ ജന്തുക്കളും ഉൾപ്പെടുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ് നിലമ്പൂരെന്ന് പറയുന്നത് പിന്നെ നിലമ്പൂരിൽത്തന്നെ ഒരു ഭാഗമുണ്ട് കരിമ്പുഴ റിസർവ്ഡ് ഫോറെസ്റ്റ് വനം അത് സംരക്ഷിത മേഖലയാണ് പിന്നെ അതുപോലെത്തന്നെ നിലമ്പൂരിലെ ഒരു പ്രധാനപ്പെട്ടൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് അല്ലെങ്കിൽ ഒരു നമ്മൾ ശ്രദ്ധിക്കാനായി സന്ദർശിക്കേണ്ടൊരു സ്ഥലമാണ് നിലമ്പൂർ തേക്ക് മ്യൂസിയം എന്നു പറയുന്നത് നിലമ്പൂർ തേക്ക് മ്യൂസിയം എന്നു പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ഉള്ളൊരു പഠന യാത്രയൊക്കെ സംഘടിപ്പിക്കണവർക്ക് സംബന്ധിച്ചെടുത്തോളം നല്ലൊരു ഫസ്റ്റ് ഓപ്ഷനാണ് നിലമ്പൂർ തേക്ക് മ്യൂസിയം തേക്ക് എന്നു പറഞ്ഞാൽ മരത്തെക്കുറിച്ച് ശരിക്കറിയാൻ പറ്റും ഇതിന്റെ ആവാസവ്യവസ്ഥ അതിനെക്കുറിച്ച് ഉള്ള എല്ലാ കാര്യങ്ങളും എ ടൂ സെഡ് കാര്യങ്ങളവിടെ കറക്ടായിട്ട് ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെതന്നെ നമുക്ക് തേക്ക് മ്യൂസിയത്തിന്റെ ചുറ്റും ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒരുമിച്ചിരുന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയറുണ്ട് ബട്ടർഫ്ലൈ പാർക്കുണ്ട് അങ്ങനത്തെ അടിപൊളി നല്ലൊരു സെറ്റപ്പാണ് നിലമ്പൂർ തേക്ക് മ്യൂസിയം മറ്റൊരു ആ മറ്റൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ കനോലി പ്ലോട്ടാണ് കനോലി പ്ലോട്ടിനെ സംബന്ധിച്ചെടുത്തോളം ലോകത്തിലെ ഏറ്റവും പഴയ പഴക്കം ചെന്ന തേക്ക് അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പിന്നൊരു തൂക്കുപാലമുണ്ട് അത് അങ്ങനെ പുഴ അവിടെത്തൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ശരിക്ക് ആസ്വദിക്കാൻ പറ്റിയ ഏരിയ തന്നെയാണ് നിലമ്പൂർ തേക്ക് മ്യൂസിയം എന്നുള്ളതും സോ അവിടേയും എനിക്ക് പോവാൻ ആഗ്രഹമുണ്ട് വീണ്ടും ഞാൻ പോവാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളാണ്